ഞാൻ ഓർഡർ ചെയ്തത് പോക്കോ എക്സ് ത്രീന്ന് പറഞ്ഞൊരു ഫോ മൊബൈൽ ഫോണായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഡീറ്റെയിൽസും അതായത് ടെക് വൈസെല്ലാം ഞാൻ നോക്കീട്ടാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് തന്നെ എനിക്ക് മേടിച്ച് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്തപ്പം എനിക്ക് വേറെ പോരായ്മകളൊന്നും തോന്നീല്ല നല്ലൊരു മൊബൈൽ ആയിരുന്നു നല്ലത് നല്ല ഫീച്ചേർസ് ഉള്ളൊരു മൊബൈൽ ആയതുകൊണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു യൂസ് യൂസർ ബൈ ദി യൂസർ ഫ്രണ്ട്ലി ആണ് മൊബൈൽ ആറായിരം എം എ എച്ച് ബാറ്ററി സിക്സ്റ്റി ഫോർ മെഗാപിക്സൽ ക്യാമ ഫ്രണ്ട് ക്യാം ആണെങ്കിലും സിക്സ്റ്റി മെഗാപിക്സൽ ഉണ്ടായിരുന്നു വേറെ എടുത്ത് പറയാണെങ്കീൽ ആറായിരം എം എച്ച് അത് ഭയങ്കര ഉപകാരം ആണ് കാരണം ഒരു ഡേ വൺ ഡേ ഫുൾ നമ്മൾ ഫുൾ ടൈം യൂസ് ചെയ്താൽ പോലും വൺ ഡേ സുഖമായിട്ട് കിട്ടും വേറെ അതായത് ബാറ്ററി ഇഷ്യൂസ് ഒന്നും വേറൊന്നും വരുന്നില്ല ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇല്ല അതുപോലെ തന്നെ സിക്സ്റ്റി ഫോർ മെഗാ പിക്സലിൻ്റെ ക്യാമറ ഭയങ്കര അടിപൊളിയാണ് നല്ല ക്ലിയർ ഫോട്ടോസാണ് ഭയങ്കര ക്ലാരിറ്റി ആണ് ആ കളർ കോമ്പിനേഷൻസ് വരെ അടിപൊളിയാണ് പിന്നെ അതിനകത്ത് വരുന്ന സെ ക്യാമ റ സെറ്റെന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ മെഗാപിക്സൽ പിന്നെ ഒരു സിക്സ്റ്റീൻ മെഗാപിക്സൽ അതിൻ്റെ കൂടെ മാക്രോ ടു മെഗാ പിക്സൽ മാക്രോയിലൊക്കെ നല്ല അടിപൊളി ആയിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങളുടെ ഒക്കെ നല്ല ഭംഗി ആയിട്ട് ഒരു പ്രൊഫഷണൽ ക്യാമറയിൽ എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് അതിനകത്ത് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ എന്താ പറയാ നല്ല യൂസർ ഫ്രണ്ട്ലി ആണ് അതിൻ്റെ ആ ഒരു ഫ്രണ്ട് മൊബൈൽ മൊബൈലിൻ്റെ ആ ഒരു ഹാൻഡി ഭയങ്കര ഹാൻഡിയാണ് ആ ഒരു ലുക്ക് ആണ് ലുക്ക് വൈസ് ആണെങ്കിലും നല്ല അടിപൊളി ഒരു ഫോണാണ് അതിൻ്റെ ആ ട്രയോ സെറ്റ് ക്യാമറ വരുന്നത് പ്രത്യേകിച്ച് എന്താ പറയാ ഫ്ളാഷും ആ മൂന്ന് ക്യാമറയും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ആ ഒരു ഏരിയ കാണാൻ നല്ല അടിപൊളി ആണ് എന്താ പറയാ ആരും കാണുമ്പം തന്നെ ഒന്ന് നോക്കിപ്പോവുന്നൊരു മൊബൈൽ ആയിരുന്നു പിന്നെ എനിക്ക് വേരെ ഇഷ്യൂസ് ഒന്നും തോന്നീട്ടില്ല മൊബൈലിന് ഓവർ ഓൾ നല്ലൊരു അടിപൊളി ഫോണായിരുന്നു